ഹലോ ജെനേഷ് സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു അ അതേ പറയൂ അ വെജിറ്റേബിൾസിനു ഓഫർ ഉണ്ട് അ ഫിഷിനുണ്ട് ഉം പിന്നെ ഗാഡ്ജറ്റ് ഐറ്റംസിനുണ്ട് ഷേയ് ഐറ്റംസിനുണ്ട് ഏ ഇലക്ട്രോണിക് ഐറ്റംസിനുണ്ട്

ഷുഗറിനില്ല പിന്നെ നമുക്ക് ഓഫർ അല്ലാണ്ട് ഒരു ഓഫർ ഉണ്ട് ഡബിൾ നയൻ നിന് പർച്ചേയ്സ് ചെയ്താൽ വൺ കേ ജി ഷുഗറുണ്ട്

ആ ആ അ ഇവിടുത്തെ കസ്റ്റമർ കെയറിൻ്റെ നമ്പറിലേക്ക് ഒര് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ആ ഓക്കെ ആ ഹോം ഡെലിവറി ഉണ്ട്

വേണ്ട വേണ്ട ഫ്രീയാണ്

ആ ഫിഷുണ്ട് ചിക്കനൊക്കെയുണ്ട് ആ ഫിഷ് ചെറിയ ഫിഷ് ഉണ്ട് മത്തി അയല അങ്ങനത്തെ ഉണ്ട് വലുത് ആവോലി സ്രാവ് അങ്ങനത്തെ സംഭവമൊക്കെയുണ്ട്

ആ ഓക്കെ ഫ്രൂട്സും ഉണ്ട് ആ ഇന്നലെ ഇന്നലെ വന്നത് ഇതാണ്

ആ മാനന്തവാടി തന്നെ ആ ഓക്കെ ആ റൈസുണ്ട് ആ ടെൻ കെ ജി ന്റെ ഉണ്ട് ഫിഫ്റ്റി കെ ജി ന്റെ ഉണ്ട് ട്വൻറ്റി ഫൈവ് കെ ജി ന്റെ ഉണ്ട് ആ ഓക്കെ ആ ആ ഏ അൽറെഡി അതിന് ഓഫർ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത് ഉം പിന്നെ ഒരുഏ ഫിഫ്റ്റി കെയ്ക്ക് മുകളിലേക്കാണെങ്കിൽ അഡീഷണൽ ഓഫർ ഉണ്ടാകും ആ അ ഷോപ്പില് വരണം ഈ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ആ ഓഫർ ആ അയച്ചു തരാം ആ ഓക്കെ